ഹലോ ഫെഡറൽ ബാങ്കിലേക്ക് സ്വാഗതം എന്തായിരുന്നു സാർ ആവശ്യം അ എന്ത് ലോണാണ് ഏതു കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത് ഗോൾഡ് ലോണാണോ

ഫാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സ് ലോൺ ആണല്ലേ അത് നിങ്ങൾ എല്ലാം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തതാണോ ലൈസൻസ് ഒക്കെ എടുത്തതാണോ ഹെൽത്തിൻ്റെ അതെ ഹെൽത്തില് അപ്ലെ ചെയ്തതാല്ലേ ഹെൽത്തില് ഓക്കെ അതിൻ്റെ രണ്ട് പേപ്പർ നിങ്ങളുടെ ആധാർ ഫോട്ടോസ് നാല് ഫോട്ടോസ് ഐഡൻറ്റിറ്റി കാർഡ് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ സ്കെച്ച് വേണം അപ്പോൾ ഇത്രയും രേഖകളാണ് ബാങ്കില് നിങ്ങളുടെ ലോൺ അപ്ലെ ചെയ്യാനുള്ള ആവശ്യമുള്ള രേഖകള് ഇനി നിങ്ങൾക്ക് ഇൻ്ററെസ്റ്റെ എന്ന് പറയുന്ന പന്ത്രണ്ട് ശതമാനം തൊട്ട് പതിനഞ്ച് ശതമാനം വരെയാണ് വരുന്നത് അ ഇതിന് എത്ര അമൗണ്ടെന്ന് വച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഫണ്ട് വരിക ഫോർ ലാക്ക് ആണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്തുചെയ്യണം നിങ്ങൾ ആവശ്യപ്പെടുന്ന എത്ര ലക്ഷം രൂപയാണോ അതിനൊരു അപേക്ഷയും കൂടെ ഈയൊരു പേപ്പർസിൻ്റെ കൂടെ നിങ്ങൾ ഓഫീസിലേക്ക് കൊണ്ട് വരണം ബാങ്കിലേക്ക് വരുമ്പോൾ കൊണ്ടുവരണ്ട രേഖയാണ് അ നിങ്ങളിപ്പോൾ ഫാമിൽ എത്ര മൃഗങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കും ഒരു ലിമിറ്റ് എത്ര ഉണ്ടാവും അ അ ഹലോ അ എത്ര സൗകര്യമുണ്ട് സ്ഥലപരിമിതി എത്രയുണ്ട് നിങ്ങൾക്ക് മുപ്പത് സെൻ്റ അല്ലേ ഓക്കെ അതില് അ ഓക്കെ സാർ അപ്പോൾ ഇത്രയും രേഖകളുമായിട്ട് നിങ്ങളൊന്ന് വന്ന് കണ്ടാൽ മതി ബാങ്കിലേക്ക് വന്നാൽ മതി ഓക്കെ താങ്ക്യൂ